നമ്മള് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഓടുന്ന സമയത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങള് പിര്യോടിക്കലായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ചെക്കപ്പ് അത്യാവശ്യമാണ് പിന്നെ നമ്മള് തുടക്കത്തിൽ തന്നെ അധികം സ്പീഡെടുത്ത് ഓടാതെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത പതുക്കെ സ്പീഡ് കൂടുന്നതാണ് നല്ലത് പിന്നെ ഓടുന്ന സമയത്ത് അൽപ്പം വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുകയാണെങ്കിൽ അൽപ്പം സിപ്പ് സിപ്പായിട്ട് ശകലം വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ ഓടി വന്നതിന് ശേഷമായാലും ഉടനെ അധികം വെള്ളം കുടിക്കാതിരിക്കുകയാണ് നല്ലത് ഒന്ന് അൽപ്പം റിലാക്സായി ബോഡിയൊക്കെ ഒന്ന് തണുത്ത ശേഷം വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് തണുപ്പ് കാലത്ത് നമ്മള് ഓടുമ്പോൾ ആവശ്യമായ പ്രൊട്ടക്ഷൻ തണുപ്പിനെ നേരിടാനുള്ള പ്രൊട്ടക്ഷൻ കരുതുന്നത് നല്ലതാണ് ചൂട് കാലത്താണെങ്കില് പെട്ടെന്ന് ഒരുപക്ഷേ തളർച്ചയുണ്ടാവാം അപ്പം അത് ശ്രദ്ധിക്കണം അപ്പം ശകലം വെള്ളം കരുതുന്നത് നല്ലതാണ് വെള്ളം സിപ്പ് സിപ്പായിട്ട് അൽപ്പം കുടിക്കുക മാത്രമേ ചെയ്യാവൂ

ഓടുന്നത് മനുഷ്യൻ്റെ ഓജസ്സും തേജസ്സുവൊക്കെ കൂടാനും ശരീരം ഉറയ്ക്കാനും വയറ് കുറയാനുമൊക്കെ നല്ലതാണ് അധികം എക്സസൈസ് ഒരുപാട് സമയം ഓടാതിരിക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് മാത്രം ഓടുക എന്നിട്ട് പാർട്ടിക്കുലർ ടൈം അയിനായിട്ട് സെലെക്റ്റ് ചെയ്യുക പിന്നെ സ്മാർട്ട് ബാൻഡ്കൾ ഉപയോഗിക്കുക അപ്പം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങളെന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും